ആ ചേട്ടാ നമുക്കേ പാലക്കാട് ജംഗ്ഷനിലേക്ക് ഒന്ന് പോകണം വിക്ടോറിയ കോളേജിൽ ആക്കി അപ്പോൾ നമ്മള് എപ്പം ഇവിടെ നിക്കണ്ടേ നമ്മള് ഒറ്റപ്പാലത്താണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഇനി വണ്ടികളും എന്തെങ്കിലും ഒഴിവായി കിടപ്പുണ്ടോ ആ നമുക്ക് ഇവിടന്ന് ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ടു മണിക്ക് എക്സാം ഉണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ പതിനൊന്നു മണിക്ക് അവിടെ എത്തുന്ന രീതിയിൽ എത്തണം ആ ചേട്ടാ ഇപ്പോൾ നമ്മള് ഒറ്റപ്പാലത്ത് ഇവിടെ ഒറ്റപ്പാലം ജംഗ്ഷനില് ലെഫ്റ്റിലേക്ക് പോകുന്ന വഴില് തന്നെ ആണ് നമ്മള് നിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്നു പാലക്കാടേക്ക് എത്തണം

പന്ത്രണ്ടു മണിക്ക് പതിനൊന്നു മണിക്ക് മുൻപ് എത്തില്ലേ അവിടെ എത്തുവല്ലോ അല്ലെ അപ്പം എങ്ങനെയാണു അവര് ഇവിടെ വരുവോ അതോ നമ്മള് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണോ നിങ്ങള് ഒന്നിച്ചാൽ പറയൂല്ലോ അല്ലെ ഓക്കെ അപ്പോൾ നമ്മള് പെയ്മെന്റ് ഇപ്പോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ആണോ കൊടുക്കേണ്ടേ അവരുടെ കയ്യില് കൊടുത്താൽ മതിലെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഒരു എത്ര മണിക്ക് മുൻപ് എത്തും ആ എത്തുവല്ലോ അല്ലെ ഓക്കെ റെഡി ശരി ശരി